കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകതാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒര് കായിക വിനോദം എടുത്ത് നോക്കുവാണെങ്കില് ഫുട്ബോൾ പ്രേമികളുള്ള ഒരു ജില്ല അയൽ ജില്ല മലപ്പുറം കേരളത്തില് ഏറ്റവും കൂടുതല് ഫുട്ബോൾ പ്രേമികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറമെങ്കിൽ അതിനോട് തൊട്ട് പുറകിൽ കിടപിടിച്ച് നിൽക്കുന്നൊരു ജില്ല നമ്മുടെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് മെസ്സിയേയും നെയ്മറിനേയും ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുറച്ച് കുറച്ചല്ല ഒത്തിരി അധികം ആളുകളുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ഇപ്പം വിനോദസഞ്ചാരത്തിന് വിനോദ കായിക വിനോദത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് ക്രിക്കത്തി ക്രിക്കറ്റിനും ഫുട്ബോളിനും ഹോക്കിക്കും ഒക്കെ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജില്ല അതാണ് കോഴിക്കോട് എൻ്റെ മനസ്സില് അതാണ് സത്യം പിന്നെ അതേപോലെ തുഷാരഗിരി വെള്ളച്ചാട്ടം വെള്ളത്തിന് അതായത് നമ്മള് വിനോദ പ്രവർത്തനങ്ങളെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം നമുക്ക് ഫേമസായ ഒരു വെള്ളച്ചാട്ടമുണ്ട് തുഷാഗ തുഷാരഗിരി വെള്ളച്ചാട്ടം പിന്നെ അതേപോലെ സർവ്വകലാശാല കേരളാ കരകൗശല ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ക്രൌൺസ് തിയറ്ററ് നമുക്കൊത്തിരി അതായത് നമുക്ക് പോകാനാഗ്രഹിക്കുന്ന ഒത്തിരി സ്ഥലം കോട്ടയുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തുറമുഖങ്ങളിണ്ട് ഒക്കെയൊണ്ടവിടെ